പെട്രോളിൻ്റെ വിലവർധന എന്താണ് പറയുക എന്നെ സംബന്ധിച്ചാണെങ്കിൽ അത് ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ എന്താണ് പറയുക എൻ്റെ ഏട്ടൻ്റെ കൂടെ ഈ ബൈക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എന്താണ് പറയുക പെട്രോൾ തീർന്നിരുന്നു ആ സമയത്ത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയ സമയം എന്നു പറഞ്ഞാൽ വില വർധന അതിൻ്റെ പൈസ അതിൻ്റെ പണം കൂടിയപ്പോൾ നമുക്കത് എന്താണ് പറയുക നമ്മളുടെ രീതിയിൽ സാ നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് തന്നെ ആ ഒരു വില വർധന നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തായിരുന്നു അപ്പം ഇപ്പം നമ്മളെ ആവശ്യമായതുകൊണ്ട് നമ്മൾ ആ സമയം പെട്രോൾ അടിച്ചു പോയി പക്ഷേ പിന്നീട് ഈ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ ഇതിൻ്റെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പെട്രോളിൻ്റെ വില വർധന കാരണം ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രശ്നങ്ങൾ എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്താണ് പറയുക പിന്നീട് ഒരു കുറച്ചു കാലങ്ങളോളം അതിൻ്റെ ഒരു വില വർദ്ധിച്ചത് കൊണ്ട് തന്നെ ബൈക്ക് ഉപയോഗിക്കാൻ പറ്റാതെ രീതിയിൽ വരെ ആയിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം അത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല പൈസ ആ പെട്രോളിൻ്റെ ആ വില ഞങ്ങൾക്ക് സാധാരണക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് കാരണം ഈ എന്താണ് പറയുക ഇന്ധന വർദ്ധന കാരണം ഇതിൻ്റെ ഒരു ഉപയോഗം കാരണം ഒരുപാട് പരിസ്ഥിതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ എന്താണ് പറയുക നമ്മളുടെ കടൽ പ്രക്ഷോഭം ഈ നമ്മളുടെ പരിസ്ഥിതി പ്രശ്നം ഇതിൻ്റെ പുക കാരണം ഉണ്ടാകുന്ന എന്താണ് പറയുക ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നം അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കാരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്താണ് പറയുക അങ്ങനെയൊക്കെ തന്നെയാണ് ഓ ഇതിനെ കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഈ ഒരു വില വർധന കാരണം ഉണ്ടാകുന്ന എല്ലാവർക്കും മനുഷ്യർക്ക് ഒട്ടാകെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയാണ്